ഞാനൊരു പവർബാങ്ക് വാങ്ങിയിരുന്നു വൺ പ്ലസ്സിൻ്റെ പവർബാങ്കാണ് വാങ്ങിയത് ഞാൻ പവർബാങ്ക് വാങ്ങാൻ തന്നെ മെയിൻ കാരണം എന്താ വച്ചാൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്ക് ചാർജർ എടുത്തിട്ട് നടന്നു പോവാൻ പറ്റില്ല പവർബാങ്ക് വേണമെങ്കിൽ കീശയിലിട്ടിട്ട് നമുക്ക് ചാർജ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാൻ പവർബാങ്ക് വാങ്ങി പവർബാങ്കിന് ഇരുപതിനായിരം ഉറുപ്പിയ വിലയുണ്ട് പക്ഷേ നല്ല ബാറ്ററി സപ്പോർട്ടൊക്കെയുള്ള ചാർജറാണ് അതുപോലെത്തന്നെ നല്ല പവർബാങ്ക് കൂടിയാണ് നമുക്ക് വണ്ടിയിലാവട്ടെ എവിടെ ആയാലും പവർബാങ്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും നല്ല പവർബാങ്കുകളാണ് നല്ല പവർബാങ്ക് ആണ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന പവർബാങ്കാണ് പവർബാങ്കിൻ്റെ അകത്തുതന്നെ ടോർച്ച് ലൈറ്റൊക്കെ വരുന്ന ടൈപ്പാണ് രണ്ട് മൂന്ന് ദിവസം പവർബാങ്കിൻ്റെ ചാർജറ് കിട്ടും അതേപോലെ ഫോണിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജറ് കയറുന്നും ഉണ്ട് ഫാസ്റ്റ് ചാർജറാണ് പവർബാങ്കിന് വന്നിരിക്കുന്നത് സി ടൈപ്പും എല്ലാ ടൈപ്പും ചാർജറ് അതിന് പറ്റും അതുകൊണ്ടാണ് ഞാൻ പവർബാങ്ക് വാങ്ങാൻ മെയിൻ കാരണം